ഇന്ത്യയിൽ മെയിനായിട്ട് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇഷ്ടമുള്ള കായിക ഇനം എന്ന് പറയുന്നത് ക്രിക്കറ്റാണ് ക്രിക്കറ്റ് കളിയ്ക്കാനും കളി കാണാനും ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരും അതിപ്പോൾ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും എല്ലാ തരത്തിലുള്ള ആൾക്കാർ വയസ്സായ ആൾക്കാരായാലും കുട്ടികളായാലും എല്ലാവരും അതിൽ ഭയങ്കര തത്പരരാണ് ഇപ്പോൾ മെയിനായിട്ട് ക്രിക്കറ്റ് കളിയ്ക്കാൻ കുട്ടികൾ തന്നെയാണ് ആൺ കുട്ടികൾ തന്നെയാണ് കൂടുതലായിട്ടുള്ളത് പെൺകുട്ടികളും കളിക്കുന്നുണ്ട് ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ നോക്കുകയാണ് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും മറക്കാനാവാത്ത കുറേ അധികം താരങ്ങളുണ്ട് സച്ചിൻ ദ്രാവിഡ് ഗാംഗുലി ധോണി പിന്നെയിപ്പോൾ കളിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് പറയുമ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ കോഹ്ലി ഉണ്ട് പിന്നേ രോഹിത് ശർമ്മ ബുംറ ഇഷൻ കിഷൻ സൂര്യകുമാർ യാദവ് ഹർദിക് പാണ്ടിയ അങ്ങനെ ഒട്ടനവധി താരങ്ങൾ ഇന്ത്യക്ക് വേണ്ടി ഇപ്പോൾ കളിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പഴയ താരങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പറയുമ്പോൾ നമുക്ക് വേൾഡ് കപ്പ് നേടി തന്ന ഗവാസ്കറുണ്ട് കപിൽ ദേവുണ്ട് അങ്ങനെ ഒരുപിടി നല്ല പ്ലെയേഴ്സിൻ്റെ ഒരു അംഗത്വമുള്ള ടീമാണ് ഇന്ത്യ ഈ ക്രിക്കറ്റിനോടൊപ്പം തന്നെ നമുക്ക് ക്രിക്കറ്റിനോടൊപ്പം തന്നെയെന്ന് പറയാൻ പറ്റില്ല എന്നാലും നമുക്ക് അതിന്റെ അത്രയും ഒരു ഇഷ്ടമുള്ള വേറൊരു വിനോദമെന്ന് പറയുന്നത് ഫുട്ബോളാണ് ഫുട്ബോളിന് ഇപ്പോൾ പണ്ട് അത്ര ഒരു മികച്ച രീതിക്കുള്ള പിന്തുണ നമുക്ക് നൽകാൻ പറ്റിയിരുന്നില്ല എന്നാലും ഇപ്പോഴത്തെ സാഹചര്യം മറിച്ചാണ് ഇപ്പോൾ നമുക്ക് ഫുട്ബോൾ ക്രിക്കറ്റ് പോലെ തന്നെ ഫുട്ബോളിനും നല്ല പിന്തുണ നൽകുന്നുണ്ട് ഇപ്പോൾ കുറേ അധികം മൈതാനങ്ങളും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കുന്നുണ്ട് പുതിയ രീതിയിലുള്ള കോച്ചും കാര്യങ്ങളും നല്ല രീതിയിലുള്ള ആൾക്കാരെ കൊണ്ടു വരുന്നുണ്ട് പിന്നേ സ്റ്റേഡിയങ്ങൾ അങ്ങനെ പിന്നെ അതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ക്ലബ്ബുകൾക്ക് കുറേ പൈസയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ അതും അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞതു പോലെ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും മൊ രണ്ട് കൂട്ടരും കൃത്യമായിട്ട് കളിയ്ക്കുന്നുണ്ട് അപ്പോൾ അതിലിപ്പോൾ നമുക്ക് മികച്ച താരമെന്ന് പറയുന്നത് ഒന്ന് സുനിൽ ഛേത്രിയാണ് പിന്നേ വേറെ ആൾക്കാർ നമുക്ക് പറയുമ്പോൾ കേരളത്തിൽ കുറേ ആൾക്കാരുണ്ട് ഐ എം വിജയനെ നമുക്ക് കേരളത്തിൽ നിന്ന് നല്ലൊരു ഫുട്ബോൾ കളിക്കാരനാണ് അങ്ങനെ നമുക്ക് ഒരു പിടി നല്ല ആൾക്കാർ അതിനു ഉണ്ട് കുറേ കാലങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഇപ്പോൾ നൂറ് വർഷവും നൂറ്റി ഇരുപത് വർഷവും കഴിഞ്ഞ ക്ലബ്ബും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട് പിന്നേ അങ്ങനെ നോക്കുകയാണ് പറയുമ്പോൾ ഫുട്ബോളും നമുക്ക് ഇന്ത്യയിൽ പ്രചാരത്തിലുള്ളൊരു കായിക വിനോദം തന്നെയാണ്